ആ ഹലോ ബീനാ ചേച്ചീ ആ എന്താ ഒന്നുമില്ല ചേച്ചി ഇങ്ങനെ പോകുന്നു ചേച്ചിക്ക് എന്നാ ഉണ്ട് ആ ഹാ ഒത്തിരി ദിവസമായല്ലൊ കണ്ടിട്ട് ആ പിന്നെ എന്നാ ചേച്ചി അത് ഒരു പണിക്കാരനോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അവര് വരട്ടെ അ ആ അ അതെ അതെ ആ ഹാ ആ ഇല്ല ആ പറഞ്ഞായിരുന്നു അത് അവര് ചെയ്ത് കഴിഞ്ഞിട്ട് പറയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പൈസ ഒര് പാടെ കൊടുത്താൽ മതിയല്ലോ ആദ്യം പണി നടക്കട്ടെ ആ ആ ആ അതെ ആ പിന്നെ പണിക്ക് വരാമെന്ന് പറയുമ്പം ഞാൻ ചേച്ചിയെ അറിയിക്കാമേ എന്നാൽ വരുവോ എന്നുള്ളത് ഇപ്പം പുള്ളിക്കിവിടെ പണി നടക്കുവാണെന്ന് പറഞ്ഞു സമയം ആയിട്ട് വരുന്ന അന്ന് ഞാൻ വിളിക്കാം ആ അതെ ആ വേറെ ആ പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളും കൂടെ ഉണ്ട് ആ ആ ആ പിന്നെ നമ്മള് വെള്ളമോ ചോറൊക്കെ കൊടുത്താൽ മതി ആ കൊടുത്തോളം കൊടുത്തോളം ബീനാച്ചേച്ചി ഉം ഉം ആ ആ ആ ആ ആ അത് കുഴപ്പമില്ല ഞാൻ കൊടുത്തോള്ളാം ആ ആ ആ അങ്ങനെ ചെയ്യാം ഓക്കെ ആ പിന്നേ ബീന ചേച്ചി പിള്ളേര് സ്കൂളിൽ പോയേക്കുവാണ് ആ സ്കൂളിൽ പോയേക്കുവാണ് ആ നാല് മണി ആകുമ്പത്തേക്ക് വരുത്തുള്ളു ആ ബീന ചേച്ചി അന്ന് പണിക്കാര് വരുമ്പം വീട്ടിലില്ലേലും എപ്പഴേലുമൊന്ന് അങ്ങോട്ട് വരണേ എപ്പഴേലും വീട്ടിലുള്ളപ്പം അ ആ ആ ആ അല്ലെങ്കിൽ നമ്മള് നോക്കി നിന്നില്ലെങ്കിൽ ആ ഹാ അന്നാലും നോക്കി നിന്നില്ലെങ്കിലെ അവര് ചിലപ്പം ഉഴപ്പിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ അ രണ്ട് ദിവസത്തെ പണി വേണമായിരിക്കുമല്ലെ രണ്ട് ദിവസത്തെ പണി വേണമായിരിക്കും ഒരു ദിവസം കൊണ്ട് തീരുകയില്ലായിരിക്കും ആ ആ ആ അതുകൊണ്ട് അങ്ങനെ ആ അത് സാരമില്ല രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമോ അതിൽ കൂടുതൽ പോകത്തില്ലായിരിക്കും ആ ആ ഒമ്പത് മണിയാകുമ്പം വരുവ എന്നാണേ പറഞ്ഞേക്കുന്നതെ ആ ഹ അ ഒമ്പത് തൊട്ട് നാലര നാലര വരെ എങ്ങാണ്ട് ഉം ഹ് ഉം ഹ് പിന്നെ ചേച്ചിക്ക് എന്നാ ഉണ്ട് വേറെ വിശേഷങ്ങളൊക്കെ ആ ആ ഹാ ഹാ ആ ആ ആ ആ ഹാ ആ ഹാ ആ ചേച്ചി അങ്ങനെ പോകുന്നെങ്കിൽ പൊക്കോ ഞാന് അത് അഡ്ജസ്റ്റ് ചെയ്തോളം ഞാൻ നിന്നോളാം ആ കുഴപ്പമില്ല ആ എന്നാൽ ശരി എന്നാൽ ആ ഓക്കെ